ആ ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഒരു അമ്പലമുണ്ട് മണ്ഡപംമൂല എന്നാണ് പറയുന്നത് അമ്പലത്തിൽ ഭജന ട്രൂപ്പ് ഉണ്ട് അതായത് നമ്മുടെ ശബരിമലയിൽ മാല ഇടുന്ന ആ ഒരു ടൈം ഒരു ടൈമിൽ ഒക്കെയാണ് ഭജന തുടങ്ങുന്നത് അവർ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗജിറ എന്നു പറഞ്ഞ ഒരു സാധനമാണ് അതുവച്ച് ഇങ്ങനെ അവർ താളം പിടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെയാണ് അതാണ് അവർ യൂസ് ചെയ്യുന്നത് അവിടെയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാലയിട്ടവരും അവർ ഫാമിലി ഒക്കെയായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അവരു വന്ന് ഭജന പാടുന്നു അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെയുണ്ട് അതുപോലെത്തന്നെ അവരുടെ അവർ ഇത് ഒരു മാല മലയ്ക്ക് പോകുന്നതിൻ്റെ തലേദിവസം വരെ അവർ ഇത് തുടർച്ചയായിട്ട് ചെയ്യും ഇങ്ങനെ ഭജന ട്രൂപ്പിൽ വന്ന് അമ്പലത്തിൽ വന്ന് ഭജന പാടി അവർ പോകും അങ്ങനത്തെ പരിപാടിയാണിത് മാല ഇട്ടവർ നിർബന്ധമായും വരും അവരുടെ ഫാമിലിക്ക് വരാൻ പറ്റുമെങ്കിൽ അവരും വരും എല്ലാവരും ഒത്തുകൂടി ഭജന ഒത്തുകൂടി പാടി അവിടുന്ന് ഫുഡും കഴിച്ച് ഒക്കെയാണ് അവർ വീട്ടിലേക്ക് പോകുന്നത്